കേരളത്തിലെ തദ്ദേശീയ കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മവരുന്നത് പടയണി ആണ് പടയണിയിൽ നിന്നാണ് കേരളത്തിലെ കലകൾ ആദ്യമായി ആരംഭിക്കുന്നത് അന്യഗോത്രവർഗ്ഗക്കാരിൽ നിന്നുമാണ് ഈ പടയണി ഉൽഭവിച്ച് വന്നിട്ടുള്ളത് ഇത് മാറി കഥകളി കഥകളി നാടകം അതുപോലുള്ള നാടകം സിനിമ ഇപ്പോൾ സിനിമയിൽ വരെ വന്ന് നിക്കുകയാണ് അപ്പോള് ആദ്യം പടയണിൽ നിന്ന് തുടങ്ങി കഥകളി ഉണ്ടായിരുന്നു കഥകളി കുറേ നാളും ഈ കേരളത്തേ പിടിച്ചുനിന്നു ഓരോ ഉത്സവങ്ങളുടെയും ഉത്സവങ്ങളിലും ഓണ പരിപാടിക്കും ബാക്കിയുള്ള അതുപോലുള്ള ഓരോ കേരളത്തിലെ ആചാരങ്ങൾക്കും കേരളത്തിൽ നടക്കുന്ന ഓരോ ആചാരങ്ങൾക്കിടയിലും കഥകളി പടയണി അതുപോലുള്ള കാര്യങ്ങൾ പണ്ടുകാലങ്ങൾ മുതലേ വളരെ അധികം സമ്പൂർണമായി നടന്നു പോകുന്നൊരു കാര്യമാണ് ഇത് പടയണിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സിനിമയിൽ സിനിമാരംഗത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ പടയണി എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരും ഭദ്രകാളിയുടെയും അതുപോലുള്ള ഓരോ ക്യാരക്ടട്ടേഴ്സിൻ്റെയും വേഷങ്ങളണിഞ്ഞ് നാടകം അഭിനയിക്കുന്നതാണ് പടയണി എന്ന് പറയപ്പെടുന്നത്